ഇപ്പോൾ പ്രത്യേക സീസണുകളില് മനുഷ്യരെ ബാധിക്കുന്ന അസുഖങ്ങളെന്നൊക്കെ പറഞ്ഞ് കയിഞ്ഞാല് ഇപ്പോൾ കൂടുതലായിട്ടും മഴക്കാലത്താണ് കൂടുതലായിട്ടും നല്ല രീതിലുള്ള പകർച്ചവ്യാധിയും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണമെന്തെന്ന് വച്ച്കഴിഞ്ഞാല് മഴക്കാലത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞ്കഴിഞ്ഞാല് ഈ കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി അങ്ങനത്തെ ചിക്കൻഗുനിയാ അങ്ങനത്തെ ഇതാണ് കൂടുതലായിട്ടും വരുന്നത് കാരണമെന്ന് വച്ച് കഴിഞ്ഞാല് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിനനുസരിച്ച് കൊതുക് വന്ന് മുട്ടയിടുക അപ്പം ആത് എന്താ പറയുക സ്പ്രെടായിട്ട് കുറെ കൊതുകുകളായിട്ട് നമ്മളെ വന്ന് കടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിന് എന്താ പറയുക പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയുണ്ടാവും അപ്പം അതിന് എന്താ പറയുക പ്രതിരോധിക്കാൻ വേണ്ടീട്ട് പല രീതിയിലുള്ള കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരും പിന്നേന്ന് പറഞ്ഞ്കഴിഞ്ഞാല് കോളറയും അങ്ങനത്തെ അസുഖങ്ങളോക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് ഇതൊക്കെ മെയിനായിട്ടെന്ന് പറഞ്ഞ്കഴിഞ്ഞാല് വൃത്തിയില്ലായ്മ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് അപ്പം നമ്മളിപ്പം ടൗണിലൊക്ക പോവുന്ന സമയത്ത് ടൗണിലെ ഓവുചാലും കാര്യങ്ങളൊക്കെ അടഞ്ഞിരിക്കുവാണെങ്കിൽ ടൗണൊക്കെ നല്ല രീതീല് നിറഞ്ഞൊഴുകും അങ്ങനൊത്ത കാര്യങ്ങളൊക്ക ആണെങ്കില് ഇപ്പം ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇപ്പം എലിപ്പനി കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൂടെയാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം